ഞങ്ങളുടെ പ്രദേശത്തുള്ള ആൾക്കാരെ ഇപ്പോൾ എന്താ പറയുക കുടുംബം എല്ലാവരും ഞങ്ങളുടെ കുടുംബക്കാരാണ് അപ്പോൾ ഇവിടെ ഫാമിലി ആയിട്ട് കുടുംബമായിട്ട് ഇവിടെ ആൾക്കാരോട് പാലക്കാട് തന്നെ മലമ്പുഴ ഡാം അതുപോലെത്തന്നെ ഇവിടെ പോകാനുള്ള പാലക്കാട് കോട്ടയുണ്ട് യാത്രയ്ക്ക് പോവുകയാണ് വെച്ചാൽ പിന്നെ പോത്തുണ്ടി ഡാം അതുപോലെത്തന്നെ പറമ്പിക്കുളം ധോണി കവ അങ്ങനെ അങ്ങനെ സ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ടാണ് ആൾക്കാർ പോകാറുള്ളത് എന്തുകൊണ്ടാണ് പോണെ വെച്ചാൽ നമുക്ക് അറിയാം ഇപ്പോൾ മലമ്പുഴ എന്നൊക്കെ പറയും പാലക്കാടിനെ ഏറ്റവും പാലക്കാട് ഏറ്റവും പ്രസിദ്ധം ആയിട്ടുള്ള മലമ്പുഴ ഡാം ഒക്കെ ആയിട്ടാണ് അപ്പോൾ അവിടെ ഒരുപാട് കാഴ്ചകളും മറ്റുകാര്യങ്ങളും ആണ് കുടുംബസമേതം നമുക്ക് അവിടെ പോയിട്ട് സമയം ചിലവഴിക്കാൻ ഒക്കെ പറ്റിയ സ്ഥലങ്ങളാണ് കുട്ടികൾക്ക് ആയിക്കോട്ടെ പുതിയ കാര്യങ്ങളും പാലക്കാട് കോട്ട എന്ന് പറയുമ്പോൾ ഒരുപാട് ചരിത്ര വിശേഷണമുള്ളൊരു കോട്ടയാണ് അപ്പോൾ അവിടെ അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് പുതിയ പുതിയ കാഴ്ചകൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള തന്നെയാണ് ഇപ്പോൾ നമ്മളെ പോത്തുണ്ടി ഡാമിലൊക്കെ പറയുകയാണെങ്കിൽ അവിടെ ഡാം കാണാനും അതുപോലെത്തന്നെ ഒരുപാട് സൈക്ലിംഗ് മറ്റു കുതിര കുതിരയിലുള്ള സവാരി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഷൂട്ടിംഗ് ആയിക്കോട്ടെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നതോടുകൂടി ആളുകൾ എന്താ പറയുക കൂടുതലും അവിടോട്ട് പോകാനും മറ്റു കാര്യങ്ങളൊക്കെ തുടങ്ങി ഒരുപാട് ചെടികൾ ആയിക്കോട്ടെ ഒരുപാട് പ്രകൃതി സംരക്ഷിക്കുന്ന ഒരുപാട് മേഖലകളാണ് അതൊക്കെ അപ്പോൾ ഇവയൊക്കെ ആളുകൾ എന്താ പറയുക എൻ്റെ അവിടെ എൻ്റെ വീടിൻ്റെ അവിടെ ആയിക്കോട്ടെ എല്ലാവരും വേനൽക്കാല അല്ലെങ്കിൽ വെക്കേഷൻ സമയത്ത് അവിടെയാണ് പോകാറുള്ളത്